പ്രാർത്ഥനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മടെ നമ്മുടെ ബലമായ വിശ്വാസങ്ങളും വിശ്വാസങ്ങളിൽ ഏറ്റവും ഒന്നാണ് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നമുക്ക് പ്രാർത്ഥന ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒന്നാമതായിട്ടും നമ്മളെ ഏറ്റവും കൂട്തലായിട്ട് ചൊല്ലുന്നത് ജപമാല ജപമാല നമ്മടെ ജീവ് നിത്യ ജീവിതത്തതിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുതാണ് ജപമാല ആ ജപമാല എല്ലാ ദിവസവും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വൈകിട്ടെന്നല്ല കുരിശ് വരയ്ക്കുമ്പോൾ എന്നല്ല എപ്പോഴും സമയം കിട്ടുമ്പഴൊക്കെ ഞാൻ ആ ജപമാല ചൊല്ലാറുണ്ട് എനിക്ക് ദൈവ വിശ്വാസത്തിൻ്റെ വെല്യ ഒരു കാര്യമാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളാണ് അജപമാല കരണ കൊന്ത എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മൂന്ന് മണിയാവുമ്പോൾ കരുണ കൊന്ത ചൊല്ലാറുണ്ട് അത് തോറ്റുന്നെടത്തോളം സമയങ്ങളിലൊക്കെ എനിക്ക് രാത്രി മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയ്ക്കും രാത്രി മൂന്ന് മണിക്കും ഒക്കെ ഞാൻ കര്ണ കൊന്തകൾ ചൊല്ലാറുണ്ട് അതെനിക്ക് ബയ്ങ്കര ഇഷ്ടമാണ് പിന്നെ തിരുഹൃദയത്തിൻ്റെ ജപമാല അത് തിരുഹൃദയത്തിൻ്റെ കൊന്ത അതൊക്കെ നമ്മുടെ വിശ്വാസമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മാതാവിനോടുള്ള ഭക്തി വളരെ ഇതാവുന്ന പ്രാർത്ഥനകള് പിന്നെ സുകൃത ജപങ്ങൾ പിന്നെ വിശ്വാസ പ്രമാണങ്ങൾ അങ്ങനാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ കാര്യങ്ങൾ നിയോഗമൊക്കെ വച്ച് മുപ്പത്തി മൂന്ന് വിശ്വാസ പ്രമാണം ഒക്കെ ചൊല്ലുമ്പം തന്നെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് മുപ്പത്തി മൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ച വയ്ക്കുക പിന്നെ എത്രയും ദയയുള്ള മാതാവേ അതിന് എനിക്ക് എണ്ണമൊന്നുവില്ല ഞാൻ എനിക്ക് എത്രത്തോളം ആ എത്രയും ദയയുള്ള മാതാവേ ചൊല്ലുന്നത് എൻ്റെ ജീവിതത്തില് വളരെയധികം പ്രാധാന്യം ഉണ്ട് ഒരുപാട് വിഷമം ഘട്ടങ്ങളിൽ കൂടിയൊക്കെ ഞാൻ കടന്നു പോകുന്ന സമയങ്ങളിൽ ഞാന് ആരുമില്ലാതെ തനിയെ ഇരുന്ന് രൂപത്തിൻ്റെ മുന്നിൽ പോയി നിന്നു കൊണ്ട് എത്രയും ദയയുള്ള മാതാവേ ചൊല്ലാറുണ്ട് എൻ്റെ ഒരു പ്രാർത്ഥനയിൽ അധിഷ്ടിതമായ ഒരു ജീവിതമാണ് എൻ്റേത് അപ്പം ഈ പ്രാർത്ഥനകൾ നമ്മുടെ സഭാപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ എനിക്ക് ഒരുപാട് എന്നെ സ്വാധീനിക്കാറുണ്ട് പിന്നേ വണക്കമാസ പുസ്തകങ്ങൾ വണക്കമാസത്തെ പുസ്തകങ്ങളൊക്കെ ഞാൻ മാർച്ച് മാസത്തിൽ ഔസേപ്പ് പിതാവിൻ്റെ മെയ് മാസത്തിൽ മാതാവിൻ്റെ ജൂൺ മാസത്തിൽ തിരുഹൃദയത്തിൻ്റെ അങ്ങനെ ആ വണക്കമാസങ്ങളൊക്കെ ഈ മുപ്പത്തൊന്ന് ദിവസവും ഞാൻ ആ പുസ്തങ്ങൾ വായിച്ചു എല്ലാം അതാത് സ്ഥിരം പുസ്തകങ്ങൾ വായിച്ച് ഞാൻ അത് ചൊല്ലാറുണ്ട് അത് എനിക്ക് ഭയങ്കര എന്നെ സ്വാധീനിക്കിന്ന ഒരു നമക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ഏറ്റവും വലുതായിട്ട് ബൈബിൾ വായന ബൈബിള് ഞാൻ ഓരോ അദ്ധ്യായങ്ങൾ വീതം നമ്മൾ വായിക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും കുരിശ് വര കഴിയുമ്പം മൂന്നാമത്തെ സങ്കീർത്തനം അമ്പത്തൊന്നാമത്തെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഇതൊക്കെ നമ്മൾ വായിച്ചു വായിക്കാറുണ്ട് അപ്പം ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ വായിക്കുമ്പം നിങ്ങക്ക് നമ്മടെ മനസ്സിന് ഒരുപാട് ആശ്വാസവും സമാധാനവും കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നേ അതൊക്കെ എൻ്റെ ജീവിതത്തില് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നേ